മറ്റു മതങ്ങളിലെ എന്തെല്ലാം രീതികളാണ് നിങ്ങളെ ആകർഷിച്ചതെന്ന് ചോദിച്ചാൽ ഞാനൊരു ഹിന്ദുമതത്തിൽപ്പെട്ട ആളാണ് ഞാൻ മറ്റു മതങ്ങളിലെന്നെ ആകർഷിച്ചിട്ടുള്ളത് വ്രതം നോക്കുന്നത് എന്ന എല്ലാവരും എല്ലാ മതങ്ങളിലും വ്രതം നോക്കാറുണ്ട് ക്രിസ്ത്യൻ മതത്തിൽ വിശ്വസിക്കുന്നവർ ഈസ്റ്ററിനൊക്കെ നോമ്പ് നോക്കാറുണ്ട് ആ സമയം ഞാൻ കേട്ടിട്ടുള്ളത് അവർ അവർക്കിഷ്ടമുള്ള ഒരു ആഹാരം നോൺവെജ്ജ് എന്ത് ആണെങ്കിലും അല്ലായെങ്കിലും ചിക്കാനോ മട്ടനോ എന്തെങ്കിലും അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനം ഉപേക്ഷിക്കും ആ നോമ്പ് നോക്കുന്ന വ്രതം എടുക്കുന്ന സമയത്ത് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് പിന്നെ മുസ്ലിം മതത്തിലും വ്രതം നോക്കുന്നു അവർ റംമ്ദാൻ മാസത്തിൽ വ്രതം നോക്കുന്നവരുണ്ട് ആഹാരം ഒന്നും പകൽ സമയം ആഹാരം കഴിക്കാറില്ല സന്ധ്യ കഴിഞ്ഞ് അവരുടെ പള്ളിയിൽനിന്നും ബാങ്ക് വിളി കേട്ടതിന് ശേഷം മാത്രമേ അവർ ആഹാരം കഴിക്കാറുള്ളു ആ ആ വ്രതം നോക്കു മുസ്ലിംസിൻ്റെ വ്രതം നോക്കുന്നതിലാണെങ്കിൽ ചിലർ ആഹാരം ഉപേഷിക്കുന്നവരുണ്ട് ചിലർ ആഹാരവും വെള്ളവും ഉപേഷിച്ച് നോമ്പ് നോക്കുന്നവരുണ്ട് എന്നാൽ കഠിനവ്രതം നോക്കുന്നവരുമുണ്ട് അതായത് ആഹാരവും കഴിക്കുന്നില്ല വെള്ളവും കുടിക്കുന്നില്ല ഉമിനീര് പോലും ഇറക്കാറില്ല അങ്ങനെ കഠിനവ്രതം നോക്കുന്നവരും ഉണ്ട് അപ്പം ആ അങ്ങനെ വ്രതം നോക്കുന്നതൊക്കെ എനിക്കാ മറ്റു മതങ്ങളിൽ ഇത് എന്നെ ആകർഷിച്ചിട്ടുണ്ട് ഇത് ഹെൽത്ത്വൈസും നമ്മൾ നോക്കുകയാണെങ്കിൽ വളരെ നല്ലതായിട്ടാണെനിക്ക് തോന്നിയിട്ടുണ്ട് എല്ലാ മതങ്ങളും ഈ വ്രതം നോക്കുന്നുണ്ട് അപ്പം നമ്മളുടെ ആരോഗ്യത്തിന് അത് ഗുണം ചെയ്യും നമ്മൾ എന്നും ഭക്ഷണം കഴിച്ച് കൊണ്ടിരിക്കുമ്പം നമ്മളുടെ ശരീരത്തിന് എന്തെങ്കിലും കേടുപാടുകളുണ്ടെങ്കിൽ ശരീരത്തിന് അതിനെ കറക്ട് ചെയ്യാനുള്ള സമയം കിട്ടാറില്ല എന്നും ഫുഡ് ഇട്ടുക്കൊണ്ടിരിക്കുകയാണ് അപ്പം പക്ഷേ വ്രതാനുഷ്ടാനങ്ങൾ ഉള്ള സമയം വയർ ഒഴിഞ്ഞിരിക്കുകയും ആ സമയം നമ്മളുടെ ശരീരം നമുക്കെന്തെങ്കിലും ശരീരത്തിന് കുഴപ്പമുണ്ടെങ്കിൽ അതിനെയെല്ലാം ശരിയാക്കാൻ വേണ്ടി ശരീരം പ്രവർത്തിക്കുകയും നല്ല ആരോഗ്യം കിട്ടുകയും ചെയ്യും അത് ആണെനിക്ക് അതിൽ വളരെ ഇഷ്ടമായിട്ട് തോന്നിയിട്ടുള്ളത് പിന്നെ മറ്റു മതങ്ങൾ നിങ്ങൾ ആഘോഷിക്കുന്ന ഉത്സവങ്ങൾ എന്തൊക്കെയാണ് എന്ന് പറയുന്നത് നമ്മളിപ്പം എല്ലാ മതക്കാരും വ് അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ ഉത്സവങ്ങളിൽ പങ്കെടുക്കാറുണ്ട് ഇപ്പം റമദാനായാലും ഈസ്റ്ററായാലും അവർ നമ്മളെ ക്ഷണിക്കുകയും നമ്മളുടെ ഓണത്തിന് അവരെ ക്ഷണിക്കുകയും എല്ലാം ചെയ്യുന്നുണ്ട് മറ്റ് അതുകൊണ്ട് ആ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു സൗഹൃദം എപ്പോഴും നമ്മൾ കാത്തുസൂക്ഷിക്കുന്നുമുണ്ട് ഞങ്ങളുടെ നാട്ടിൽ ഇതൊക്കെയാണ് ആ സാഹോദര്യവും എല്ലാം ഊട്ടി ഉറപ്പിക്കാൻ പറ്റുന്ന കാലങ്ങളാണ് ഇതൊക്കെയെന്ന് ഞാൻ വിശ്വസിക്കുന്നു